ഉച്ചയൂണിനായി ഞങ്ങൾ സാധാരണ വയ്ക്കാറുള്ളത് ചോറും കറികളുമാണ് ചോറിന് ഇപ്പല് മീൻ കറിയോ ചിക്കൻ കറിയോ പിന്നെ ഏതെങ്കിലും തോരനോ അച്ചാറും ആയിരിക്കും സാധാരണ വയ്ക്കാറുള്ളത് ഇനിയിപ്പോൾ വല്ല വിശേഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കുറച്ചു കൂടുതൽ കറികൾ ഞങ്ങൾ വയ്ക്കാറുണ്ട് പുളിശ്ശേരി രസം പല തരത്തിലുള്ള തോരൻ രണ്ടു മൂന്ന് തരത്തിലുള്ള അച്ചാർ അങ്ങനെയൊക്കെ വയ്ക്കാറുണ്ട് ഇപ്പോൾ സദ്യ വല്ലതും ആണെങ്കിൽ ഞങ്ങൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാറൂണ്ട് മാങ്ങാ കറി ഉണ്ടാക്കാറൂണ്ട് പല തരം തോരൻ കാബേജ് കൊണ്ടുള്ളതുണ്ട് പയറു കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാറുണ്ട് പച്ചടി ഉണ്ടാക്കാറുണ്ട് കിച്ചടി ഉണ്ടാക്കാറുണ്ട് അവിയൽ അങ്ങനെ പലതും പിന്നെ ഒഴിച്ച് കറി ആയിട്ട് സാമ്പാർ പുളിശ്ശേരി മോര് രസം അങ്ങനെ പലതും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത്താഴത്തിനായി ഞങ്ങൾ ഒന്നുകിൽ ഉച്ചയ്ക്ക് വച്ച കറികൾ തന്നെ കഴിക്കുകയോ ചൂടാക്കി കഴിക്കുകയോ ചോറ് കഴിക്കുകയോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബ്രേക്ക് ഫാസ്റ്റ് കഴിക്കുകയോ ചെയ്യാറുണ്ട് ആ ചിലപ്പോൾ ഇഡ്ഡലിയോ ദോശയോ പുട്ടോ അങ്ങനെയുള്ളതോ വല്ലതും ആയിരിക്കും അതിൻ്റെ കൂടെ കറികളായിട്ട് പുട്ടാണെങ്കിൽ പഴം ഉണ്ടാകും അല്ലെങ്കിൽ പപ്പടവും പയറും ആയിരിക്കും ദോശയാണെങ്കിൽ സാമ്പാറോ ചമ്മന്തിയോ അങ്ങനെ വല്ലതും ഉണ്ടാക്കും അല്ലെങ്കിൽ ഞങ്ങൾ മിക്കപ്പോഴും ഓട്സ് കഴിക്കാറുണ്ട് പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ആ പലതരം ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അ മിക്കവാറും ഉച്ച ഉച്ചയിൽ ഉച്ചക്കേത്തേക്ക് ഉണ്ടാക്കിയ ചോറും കറികളുമായിരിക്കും സാധാരണയായി ഞങ്ങൾ കഴിക്കാറുള്ളത്